ശരീരഭാരം കുറയ്ക്കാനായി പൊതുവേ ഗ്രാമങ്ങളിൽ ഉള്ളത് പ്രകൃതി ചികിത്സ പോലെയുള്ള സംവിധാനങ്ങളാണ് പ്രകൃതി ചികിത്സ സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തി അതിനായിട്ട് പ്രത്യേക രീതിയിലുള്ള വ്യായാമത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കാം അതുപോലെത്തന്നെ ഭക്ഷണ കര്യങ്ങളിലും നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും പ്രകൃതിയിൽനിന്ന് സ്വാഭാവികമായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്ത് ശരീരഭാരം ക്രമീകരിക്കാൻ സാധിക്കും പ്രകൃതി ചികിത്സയിൽ ഉള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവയൊക്കെ ആണ് പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുന്നതാണ് മണ്ണ് ചെളിയാക്കി ഉള്ള ഒരു ചികിത്സ അത് ശരീരം ശുദ്ധിയാക്കും അല്ലെങ്കിൽ ശുദ്ധീകരിക്കും എന്ന് പൊതുവെ പഴമക്കാർ കരുതുന്നു അങ്ങനെ ആ വഴി തെരഞ്ഞെടുത്ത് പ്രകൃതി ചികിത്സ കൂടുതൽ കൂടുതൽ കൂടുതലായി അതിനെ ഉപകാരപ്പെടുത്തി എടുക്കാൻ ഗ്രാമത്തിലുള്ളവർക്ക് സാധിക്കും അതുപോലെത്തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലങ്ങൾ നല്ല നല്ല കിണറുകളും വറ്റാത്ത കിണറുകളും ആ വനമേഖലകളിലെ തണുപ്പുള്ള അരുവികളിൽനിന്ന് ഒക്കെ ഒഴുകി വരുന്ന ശുദ്ധജലവും വളരെ നല്ലതാണ്